ആ തീർച്ചയായും എൻ്റെ പല പാചക പരിശീലന പരീക്ഷണങ്ങളിലും എനിക്കോരോ പാചക അത്യാഹിതം ഒരു പാചക അത്യാഹിതം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഒരു ദിവസം ബിരിയാണി വെച്ച് കൊണ്ടിരുന്നപ്പോൾ വെക്കുവായിരുന്നു മീൻസ് ആദ്യം നമ്മള് ബിരിയാണിക്ക് ഉള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ചോറ് തിളപ്പിക്കാൻ വെക്കുവല്ലോ അരി അരി തിളപ്പിക്കാൻ വെക്കും അങ്ങനെ അരി തെളപ്പിക്കാൻ വെച്ചു അരി തിളച്ച് വാങ്ങാറായപ്പത്തേക്കിനും അത് ഊറ്റിയപ്പോൾ ആ തിളച്ച വെള്ളം എൻ്റെ കയ്യിലേക്ക് വീണു പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ടാപ്പിൻ്റെ പൈപ്പ് തുറന്നിട്ടിട്ട് ടാപ്പിൻ്റെ കീഴെ കൊണ്ടുപോയി കൈ വെച്ചു അതില് കൂടെ പൊള്ളു പൊള്ളിയ ഉടനെ ടാപ്പിൻ്റെ കീഴില് കൊണ്ടുപോയി വെള്ളത്തിൻ്റെ കീഴില് കൊണ്ടുപോയി വെയ്ക്കുന്നതിലൂടെ നമുക്ക് അങ്ങോട് പൊള്ളലിന്റെ ആഴം കുറയ്ക്കുകയും അതിൻ്റെ സ്വെല്ലിങ്ങ് പഴുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും പൊള്ളുമെങ്കിലും നമ്മൾ അത്ര ആഴമായിട്ടും സീരിയസാട്ടും പോകാതെ നമുക്കതിനെ കുറയ്ക്ക് പൊള്ളലിൻ്റെ ആസക്തി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ കൈ പൊള്ളി എൻ്റെ വലത്തെ കൈ പൊള്ളുകയും അതിനെ തുടർന്ന് എനിക്ക് ഒരാഴ്ചത്തോളം ഒന്നും ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു പിന്നെ ഞാൻ ഓരോ മരുന്നുകളും പേയ്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുറിവ് കുറയ്ക്കുകയും പിന്നീട് തിരിച്ച് അടുക്കളയിലേക്ക് കയറാനും പറ്റി ഏറ്റവും നല്ലൊരു ഫസ്റ്റ് എയ്ഡെന്ന് വേണമെങ്കിൽ പറയാം പൊള്ളി കഴിഞ്ഞാൽ അതിന്റെ ഉടനെ തന്നെ ടാപ്പിന് കീഴെ കൊണ്ടുപോയി കൈ പൊള്ളിയ സ്ഥലം ഇപ്പോൾ കയ്യിലാണെൽ കൈ ഉണ്ടെങ്കിൽ പൈപ്പിൻ്റെ കീഴില് കൊണ്ടുപോയി പൈപ്പ് ഓണാക്കി വെക്കുക അതിലൂടെ ഒരുപാട് പൊള്ളിയതിൻ്റെ ആസക്തി നമുക്ക് കുറയ്ക്കാനും എല്ലാം സാധിക്കും അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട മരുന്നുകളും ഫർസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഫർസ്റ്റ് എയ്ഡും അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്കെടുക്കാം അതിലൂടെ നമുക്ക് പൊള്ളലിൻ്റെ ആസക്തി നമുക്ക് കുറയ്ക്കാം പാചകം എന്ന് പറയുന്നത് റിസ്ക് ആണോ ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ അതെ കാരണം നമ്മൾ തീ കൊണ്ടാണല്ലോ പാചകം ചെയ്യുന്നത് പിന്നെ ഗ്യാസ് ഒക്കെ വെച്ച് പാചകം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ട് ഒന്ന് ചൂട് സാധനങ്ങൾ ദേഹത്ത് വീഴാനും എണ്ണയായാലും വീഴാനും പിന്നെ ഗ്യാസായത് കൊണ്ട് തന്നെ അത് ലീക്കായിട്ട് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്ക സാധ്യത ഉണ്ട് നമ്മളിതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം കുക്ക് ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു പാചക അത്യാഹിതം പിന്നെ ഇതായിരുന്നു വെള്ളം വീണു കൈ പൊള്ളി അത് ഞാൻ ടാപ്പിൻ്റെ കീഴെ കൊണ്ടുപോയി കൈ വെച്ച് ആദ്യം അതിൻ്റെ ആസക്തി കുറച്ചു അങ്ങനെയാണ് ഞാൻ എൻ്റെ അത്യാഹിതം ഒഴിവാക്കിയത് പിന്നെ അതിന് വേണ്ടുന്ന മരുന്നുകളും ഓയിൽമെൻറ്റും പേസ്റ്റുമെല്ലാം യൂസ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ മുറിവ് എനിക്ക് ഉണക്കിയെടുക്കാൻ പറ്റി